ഹലോ ആ എന്താ ചേച്ചി ഇന്നോ ഏതു സിനിമ ഏത് ഏതു സിനിമ തിയേറ്ററിൽപ്പോയി കാണാനോ ആണോ ഇപ്പം രണ്ടു ദിവസം കഴിയുമ്പോൾ ഡെസ്നിയിലോ ആമസോണിലോ എന്തെങ്കിലുമൊക്കെ വരില്ലേ അപ്പം കണ്ടാൽ പോരേ ഓ ഇനിയിപ്പം ബുദ്ധിമുട്ടി അവിടം വരെ പോകണ്ടേ എ അതിപ്പം നേരത്തെയൊക്കെ അങ്ങനെ പോകുന്ന ഒരു സുഖമുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പം ഫോണിലൊക്കെ നമുക്ക് കാണാമല്ലോ വീട്ടിലിരുന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിരുന്നു കാണാമല്ലോ ആ രൺ രണ്ടു ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതി അപ്പം അതു കഴിയുമ്പോൾ ഇതു ഡെസ്നിയിലോ ആമസോണിലോ എതിലെങ്കിലും വരുമായിരിക്കും വരും ആ ഇപ്പം അപ്പം തിയേറ്ററിൽപ്പോയി ഉന്തും തള്ളും പെട്ടാൽ ടിക്കറ്റുമെടുത്ത് അങ്ങു പോകുന്നതിനെക്കാൾ നല്ലത് വീട്ടിലിരുന്നു കാണുന്നതല്ലേ ആ അതാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് നമുക്കിരുന്നു കാണാമല്ലോ മ് എവിടെ പോകാനാണ് ഉദ്ദേശിച്ചത് എവിടെ കാട്ടാക്കടയാണോ ആ ഒരുപാട് നാളായി പക്ഷെ അവിടം വരെ പോകുന്ന കാര്യം ഓർക്കുമ്പം മ് വിറ്റ് ഓ അത്ശേന ബസ്സിൽ കയറി അവിടെപ്പോയി കാണുന്നതിനേക്കഴിഞ്ഞും രണ്ടു ദിവസം കൂ വെയ്റ്റ് ചെയ്ത നമുക്ക് വീട്ടിലിരുന്ന് കണ്ടു കൂടെയെന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ആരു കാണുന്നു ഇപ്പം തിയേറ്ററിൽപ്പോയി സിനിമയൊക്കെ കാണുന്നത് എല്ലാവരും വീട്ടിലിരുന്ന് ആ ഉം അതൊക്കെ പഴയ കാലമല്ലേ ടീ വിയിൽ ഒരു സിനിമ ടീ വിയിൽ വരുന്നതൊക്കെ നോക്കി നോക്കിയിരിക്കുന്നത് ഇപ്പോൾ എത്ര പെട്ടെന്നാണ് മൊബൈലിലൊക്കെ വരുന്നതല്ലേ ആ